എൻ്റെ അടുക്കളയിൽ ഏതൊക്കെയാണ് പാത്രംന്ന് ചോദിച്ചിട്ടിണ്ടെങ്കിൽ ചീനച്ചട്ടി കലം ചെമ്പ് പിന്നെ കുറെ അതായത് കഞ്ഞി കുടിക്കാൻ പറ്റുന്ന പാത്രം പിന്നെ ഞങ്ങൾ കൂടുതലും കുപ്പി പ്ലേറ്റാണ് ഉപയോഗിക്കുക പ്ലാസ്റ്റിക്കിൻ്റെ പത്രമങ്ങനെ ചോറുണ്ണാനൊന്നും അങ്ങനൊന്നും ഉപയോഗിക്കില്ല ഇപ്പോൾ ചീനച്ചട്ടി ആണെങ്കിൽ നമ്മൾ തോരൻ വെക്കാനും പിന്നെ എന്തെങ്കിലും പപ്പടം വറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വറക്കാനും അങ്ങനുള്ളതൊക്കെ പിന്നെ കുറെ ഇങ്ങനെ കറിയൊക്കെ ഒഴിച്ചുവെക്കാൻ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കറി ഒഴിച്ചുവെക്കാനുള്ള പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണ് ഞങ്ങൾ കൂടുതലും ഉപയോഗിക്കാറ് പിന്നെ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ കുറെ പാത്രങ്ങളുണ്ട് ഒരുപാട് പാത്രങ്ങൾ പിന്നെ നൂൽപുട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പാത്രമുണ്ട് വേറെയുണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള പാത്രമുണ്ട് പിന്നെ ദോശ ഉണ്ടാക്കാനുള്ള ദോശക്കല്ലുണ്ട് അത് മൂടി വയ്ക്കാനുള്ള ഒരു പാത്രമുണ്ട് പിന്നെ കറി വെക്കാനുള്ള ചട്ടിയിണ്ട് അതേപോലെ മീൻ കറിയൊക്കെ വയ്ക്കണെൽ നമുക്ക് മൺ ചട്ടീൽ വച്ചിട്ടുണ്ടേൽ അത് പ്രത്യേക ടേസ്റ്റ്റ്റാ അപ്പോൾ അങ്ങനുള്ള മീൻ ചട്ടീണ്ട് അതിപ്പോൾ ചിക്കൻ കറിയാണെങ്കിലും മൺ ചട്ടീൽ വെച്ചിട്ടുണ്ടങ്കിൽ ഏത് കറിയാ ഏത് കറിക്കാണെങ്കിലും ടേസ്റ്റിണ്ടാവും പിന്നേ പിന്നെന്താ വെച്ചാൽ ചോറ് വയ്ക്കാനുള്ളൊരു കലമുണ്ട് ഒരു കലമല്ല രണ്ട് കലമുണ്ട് ഇപ്പോൾ ഒരു കലത്തില് ചോറ് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ മറ്റേ കലത്തിൽ വെക്കും അങ്ങനെ അങ്ങനെ ഒരുപാട് പത്രങ്ങളുണ്ട്